കാലാവസ്ഥ വ്യതിയാനങ്ങള് കൃഷിയെ ബാധിക്കാറുണ്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള പ്രാ പ്രദേശത്തെ വേനല് വർഷം മഞ്ഞ് അങ്ങനെ മൂന്ന് കാലഘട്ടത്തിലും മൂന്ന് വ്യത്യസ്ത രീതിയിലായിരിക്കും കൃഷിക്കാരെ ബാധിക്കുന്നത് വെള്ളം അധികമായി കഴിഞ്ഞുകഴിഞ്ഞാൽ വെള്ളം കെട്ടിനിന്ന് സാധനം ചീഞ്ഞുപോവും ഇപ്പം നമ്മള് ഒരു പാടത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അതൊന്ന് ഇളക്കി ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സാധനം മുഴുവനും വെള്ളത്തിൽ നിന്ന് ചീഞ്ഞു പോവും അപ്പോൾ അത് നഷ്ടമാണ് പിന്നെ വേനൽക്കാലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലമെല്ലാം എല്ലാ സ്ഥലത്തു അങ്ങനെയല്ല ചില സ്ഥലങ്ങളിലൊക്കെ കനാല് വഴി വെള്ളമൊക്കെ തിരിച്ച് അവരത് വെള്ളം തിരിച്ച് കൃഷി ചെയ്ത് വൃക്ഷങ്ങളൊക്കെ ഉണങ്ങാതെ ഒക്കെ നോക്കും ഇപ്പം ജാതി മാവ് അങ്ങനെയുള്ള സംഭവങ്ങള് തെങ്ങ് അതിനൊക്കെ വെള്ളം തിരിച്ച് കൃഷി ചെയ്ത് നോക്കും പിന്നെ മഞ്ഞ് പെയ്യുമ്പോൾ ഇപ്പം മഞ്ഞുകാലത്ത് മ മഞ്ഞു പെയ്യുമ്പം മഴക്കാറുണ്ടാകും മഞ്ഞും പെയ്യും അപ്പോൾ നമുക്ക് മാങ്ങയിൻമേലൊക്കെ ഉണ്ടായ പൂവൊക്കെ മാവിൻമേൽ ഉണ്ടായ പൂവൊക്കെ കൊഴിഞ്ഞ് പോയി പിന്നെ മുരിങ്ങ അതൊക്കെ കൊഴിഞ്ഞു പോയി നശിക്കും ഈ മഞ്ഞ് കാലത്ത് മഞ്ഞുകാലത്ത് ശരിക്കും പൂക്കുന്നുണ്ടെങ്കിലും അത് അപ്പോഴേക്കും മഴക്കാര് വരുമ്പോ ആ സാധനം മുഴുവനും നിന്ന് നശിച്ചു പോവും ഇതിനെ ഒക്കെ മറികടന്ന് മൂന്ന് കാലാവസ്ഥേനെ അനുസരിച്ച് ജനങ്ങള് അത് സംരക്ഷിച്ചു കൊണ്ടുപോ പോയാണ് കുറച്ചൊക്കെ കൃഷി ചെയ്തെടുക്കുന്നത്